അതെ മാഡം ഇതാരാണ് ആണോ എന്താണ് വേണ്ടത് നെയ്ചോറും ബീഫും ഉണ്ട് നെയ്ചോറും ചിക്കൻ കറിയുണ്ട് ഏതാണ് വേണ്ടത് ആ ഡെലിവെറി ഉണ്ട് മാഡം നിങ്ങളിപ്പം സ്ഥലം എവിടെയാണ് കോഴിക്കോട് തന്നെയാണോ മാഡം അത് ആണോ അങ്ങോട്ടേക്ക് ഇപ്പോൾ ബൈക്കിനാണ് ഇപ്പോൾ ഓഡർ കൊണ്ടുവരുന്നത് ഓഡർ ചെയ്താൽ ഫുഡ് കൊണ്ടുവരുന്നത്

ഉച്ചത്തേക്കാണ് വേണ്ടതല്ലേ എത്രയാണ് വേണ്ടത് ഒന്ന് എത്ര കിലോൻ്റെയാണ് വേണ്ടത് എത്ര പേർക്കുള്ള ചോറാണ് വേണ്ടത് ഒരാൾക്കുള്ളതാണോ വേണ്ടത് ആ പിന്നെ ആ ഇവിടെ പിന്നെ അൽഫാമും റോസ്റ്റ് മന്തി ബിരിയാണി അങ്ങനത്തെ ഐറ്റംസൊക്കെയുണ്ട് മാഡം ഇങ്ങനെന്തെങ്കിലും വേണോ മീൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് അങ്ങനെ ഒക്കെ ഉണ്ട് ആ അത് രണ്ടും മതിയല്ലേ മാഡം ആ അതിനിപ്പോൾ നമ്മൾ ബീഫ് കറിയാണോ ഉദ്ദേശിക്കുന്നത് അതോ വരട്ടിയതാണോ ഉദ്ദേശിക്കുന്നത് റോസ്റ്റാണല്ലേ ആ ആ റോസ്റ്റിനാണെങ്കിൽ ഒരു പ്ലേറ്റിന് ഒരു നൂറ്റി പത്ത് രൂപ വെരും കേട്ടോ ചോറ് പിന്നെ ഒരാൾക്കുള്ളതല്ലേ നെയ്ചോറ് ആ ഡെലിവെറി ചാർജ് ഒരു അൻപത് രൂപയാണേ ഇവിടുന്നിപ്പം അങ്ങോട്ട് വരുന്നതിന്റെ ആ വലിയ ദൂരമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പം ദൂരവും കണക്കാക്കിയിട്ടാണ് നമ്മൾ ഡെലിവെറി ബോയിക്കിപ്പോൾ ചാർജ് കൊടുക്കുന്നതേ ആ ഇപ്പോൾ ദൂരം കണക്കിനാണ് ഇപ്പം നോക്കുന്നത് കേട്ടോ ആ നെയ്ചോറും ബീഫും ആണ് വേണ്ടതല്ലേ ആ ഉച്ച ആവുമ്പോഴത്തേക്കാണോ ഉച്ച എന്ന് പറഞ്ഞാൽ എത്ര മണി ഒരു മണി രണ്ട് മണി അതിന്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ കൊണ്ടുവന്നാൽ മതി അല്ലേ മാഡം ആ ആ പിന്നെ വേറെയെന്തെങ്കിലും വേണോ വേറെയെന്തെങ്കിലും ഐറ്റംസ് ഫിഷാണെങ്കിലൊക്കെ ഫിഷ് ഐറ്റംസ് അങ്ങനെയെന്തെങ്കിലും വേണോ വേണ്ടല്ലേ ആ ട്ടോട്ട് ട്ടോട്ടൽ ഇപ്പം ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപയാവും കേട്ടോ ആ ഓക്കെ മാഡം എന്നാൽ അവിടെ എത്തുമ്പോൾ വിളിച്ചാൽ മതിയല്ലോ അവർ ആ ഓക്കെ